എൻ്റെ നാടായ പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യേശുദാസ് സാർ വരികയും അദ്ദേഹത്തെ നേരിൽ കാണുവാൻ അവസരവും ലഭിച്ചു ഇത് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയൊരു പാട്ടുകാരനെ നേരിൽ കാണാൻ കഴിഞ്ഞു എന്നതു വന്ന് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത് അതുപോലെത്ത ന്ന ചിത്ര ചേച്ചി ഇവരുടെ പാട്ടുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ചിത്ര ചേച്ചിയുടെ ഗാനങ്ങൾ ഞാൻ എന്നും മൊബൈലിലൂടെ കേൾക്കാറുണ്ട്